ഹലോ അതെയതെയതെ താങ്ക് യൂ കേരള സ്പെഷ്യലായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എന്തായിരിക്കും ഉള്ളത് ഓക്കെ എന്നാൽ നൂലപ്പം ഓക്കെ ഇത് മതിയായിരിക്കും ഇത് മതിയായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞ ആവശ്യപ്പെട്ടത് മതിയായിരിക്കും കുടിക്കാൻ ഒരു ലൈം ജ്യൂസ് വേണ്ട ലൈം ജ്യൂസ് മതി വേറൊന്നും ആ മഷ്റൂമിൻ്റെ വെരിയൻറ്റ്

ഇത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അടുത്തത് എന്ത് വേണമെന്നുള്ളത് ആ ശരി ശരി ലിസ്റ്റിട്ടോ